ഹലോ നമസ്കാരം മേഡം ഹലോ നമസ്കാരം മേഡം പറയൂ മേഡം ആ ഓക്കെ

മേഡം നമ്മുടേത് നമ്മുടെ ബ്രാൻ്റിൻ്റെ തന്നെ പേര് കണ്ണൻ ദേവൻ ടീയെന്നാണ് വച്ചിട്ടുള്ളത് മേഡം ജസ്റ്റ് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ മേഡത്തിന് ഗൂഗിളിലോ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ വന്നിട്ട് മൂന്നാർ പ്രൊജെക്ട് എടുത്തിട്ട് ഡയറെക്ട് ഫാക്ടറിയിലെത്തിച്ച് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ് മേഡം ഓ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരൻ്റി തന്നെയാണ് വേൾഡ് വൈസ് നല്ല ബെസ്റ്റ് ക്വാളിറ്റി തേയില കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് മേഡം അതെ അതെ ഇവിടെത്തന്നെ അതെ ഓൺ ഫാക്ടറിയിൽത്തന്നെ ചെയ്തിറക്കുന്നതാണ് മേഡം ആ മേഡം എങ്ങനെയാണ് ഉദ്ദേശിക്കണെ കുറച്ച് ബൾക്കായിട്ടെടുക്കാനാണോ അതോ വീട്ടിലാവശ്യത്തിനെന്തെങ്കിലും പ്രശ്നമല്ലെയെന്ന് അതൊക്കെ മേഡത്തിന് മേഡത്തിൻ്റെതായിട്ടുള്ള ലേബലിൽ സെല്ല് ചെയ്യുന്നതാണല്ലേ ആ മേഡം അങ്ങനെയാണെങ്കിൽ ലൂസായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു ഓപ്ഷന് നമ്മൾ കൊടുക്കുന്നുണ്ട് മേഡം അതല്ല നമ്മൾ ബ്രാൻ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കണ്ണൻ ദേവൻ എന്നുള്ള ലേബലിലായിരിക്കും അപ്പം മേഡത്തിന് അങ്ങനെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നമ്മൾക്ക് ലൂസ്സായിട്ടും അവൈലബിൾ ആണ് മേഡം ഇപ്പം നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുത്തിയ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടീയിൽ തന്നെ മസാല ടീ എന്നു പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല സെല്ലിങ്ങുള്ള പ്രോഡക്ടാണ് മേഡം അത് നിങ്ങൾ നോക്കുന്നുണ്ടോ ആ മേഡം നമ്മൾ നമ്മൾ ഇവടെനിന്നുതന്നെ കളക്ട് ചെയ്യുന്ന സ്പൈസസെല്ലാം ആഡ് ചെയ്തുണ്ടാക്കുന്ന നമ്മൾ മാത്രം ഒരു റെസിപ്പിയിലുണ്ടാക്കുന്നതാണ് മേഡം അതിപ്പം നിങ്ങളെടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം സക്സസ്സാവുമെന്ന് എനിക്കറിയില്ല നമ്മളത് നമ്മുടെ ഈ ഒരു ബ്രാൻ്റ് അത്യാവശ്യം നല്ല സെല്ലിങ്ങുള്ളതാണ് ആ മേഡം ഒരു കാര്യം ചെയ്യൂ അദ്യമായിട്ടാണ് നമ്മുടെ കയ്യിൽനിന്ന് കളക്ട് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നോർമൽ ആദ്യം പർച്ചേസ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് വാങ്ങിയാലും മതിയാവും ആ അതാവും ബെറ്ററ് അതെ അതെ മേഡം വന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ മേഡത്തിന് ആ ഓക്കെ ഓക്കെ ഉം ഓക്കെ മേഡം ആദ്യം നമ്മൾക്ക് നമ്മുടെ ഓരോ വിശ്വാസത്തിൻ്റെ ആ ഒരിതിൽ ഫസ്റ്റ് ആദ്യത്തെ തവണ മേഡം ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ മുതല് ഒരോന്ന് നമുക്ക് കൊറിയർ ആയിട്ട് നമ്മൾ വീട്ടിൽ എത്തിച്ചേക്കാം ആ മേഡത്തിന് ഞങ്ങളിലും കൂടെയൊരു വിശ്വാസം വേണമല്ലോ ഫാക്ടറി കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഡയറക്ട് മേഡത്തിന് കണ്ടുതന്നെ വിശ്വാസം വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ആ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യാം മേഡം ഉറപ്പായിട്ടും ചെയ്യാം നമ്മളിപ്പോൾ സാധാരണ പുറത്ത് കൊടുക്കുന്നത് ലൂസ് വന്നിട്ട് കിലോയ്ക്ക് തൗസൻ്റ് ആണ് കൊടുക്കുന്നത് മാഡം ഒക്കെ ഇത്രയും ദൂരം കഴിഞ്ഞ് വരുന്നതല്ലേ ആദ്യമായിട്ട് നമ്മളെ കയ്യിൽനിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നതാണ് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല ബിസിനസ്സ് ആയതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എത്ര കിലോയാണ് മേഡത്തിന് വേണ്ടത് ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് മാക്സിമം പറ്റുന്ന മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം മേഡം അതെ അതെ അതെ അഡ്ജസ്റ്റ് ചെയ്തു തരാം ആ ചെയ്തു തരാം മേഡം ഓക്കെ അപ്പം മേഡം വരുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സാമ്പിൾ ബോട്ടിൽ നമ്മുടെ ഒരു മസാല ടീയും കൂടി ഒന്നു നോക്കാൻ പറ്റുമോ ജസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഉം ശരി മാഡം ഉം ഓക്കെയെന്നാൽ താങ്ക് യു